അല്ല കേരളത്തിൽ ഒരു വ്യക്തിയുടെ ചികിത്സാ ചിലവ് പകുതി ഗവൺമെൻറ് ഏറ്റെടുക്കും ഓപ്പറേഷൻ ഉള്ള പൈസ എല്ലാം ഗവൺമെൻറ് എല്ലാം എടുക്കും ചികിത്സ ചിലവ് എടുക്കും അതിൽ നമുക്ക് ചിലവ് വരുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ മെഡിസിൻ വാങ്ങാനും അതിനൊക്കെ ആയിരിക്കും നമുക്ക് ചിലവ് വരിക സൗജന്യ മെഡിസിൻ കിട്ടും എന്നാലും ചില മെഡിസിൻ കുറച്ചു വില കൂടുതലുള്ളതും പിന്നെ ഇവിടെ ഗവൺമെന്റിൻ്റെ കയ്യിൽ സ്റ്റോക്ക് കമ്മി ഉള്ളതും ആയിരിക്കും അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടിവരും അതല്ലാതെ കൂടുതലായിട്ട് നമുക്ക് പ്രശ്നമൊന്നും വരില്ല ധനസഹായം എന്തായാലും ഗവൺമെന്റിൽനിന്ന് കിട്ടും ചിലവാക്കിയ മടക്കി ചെലവാക്കിയ പണം മടക്കി കൊടുക്കലെന്നത് ഉണ്ടോയെന്നറിയില്ല പക്ഷേ ഒരു വലിയ എമൗണ്ട് അല്ലെങ്കിലും ഒരു ചെറിയ എമൗണ്ട് എങ്കിലും സർക്കാരിൽ നിന്നും സഹായം കിട്ടും എന്നാണ് അത് പിന്നെ ഇൻഷുറൻസ് ഏജൻറ്മാർ ഉണ്ട് അതുകൊണ്ടുതന്നെ കുഴപ്പമില്ല